ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മതപരമായി അധികം ആൾക്കാര് കൂടുതൽ ഒരുമിച്ചൊത്തുകൂടുന്ന അമ്പലങ്ങളും പള്ളികളുമൊക്ക അയൽപക്കത്തുള്ള ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് അമ്പലങ്ങളിലാണെങ്കിൽ തന്നെ പ്രത്യേക വഴിപാടുകളെന്നങ്ങനെ എടുത്തു പറയാനുള്ളതായിട്ടൊന്നും ഇല്ല പക്ഷേ എല്ലാ വർഷവും ഉത്സവങ്ങളും അതേപോലെതന്നെ എന്താ രാമായണ പാരായണവും കർക്കിടക മാസമാവുമ്പോള് രാമായണ പാരായണം പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയാവുമ്പോള് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വച്ച് രാധയുമായിട്ട് ഒരു അങ്ങനെയൊരു ഒരു ചടങ്ങ് അവിടെ നടക്കാറുണ്ട് അതുപോലെതന്നെ എല്ലാ അമ്പലങ്ങളിലുമുള്ളത് പോലെതന്നെ അമ്പലത്തില് പ്രത്യേക അർച്ചനകളുണ്ട് അതേപോലെ ഹോമങ്ങള് നടത്താനുള്ള ഗണപതി ഹോമം അതേപോലെന്നെ മൃത്യുഞ്ജയ ഹോമം അങ്ങനെ ഹോമങ്ങള് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും എൻ്റെ പ്രദേശത്തുള്ള അമ്പലങ്ങള് എന്താ പറയുക അമ്പലങ്ങള് നടത്താറുണ്ട് അതുപോലെതന്നെ ഇവിടെ അടുത്തുള്ളൊരമ്പലമാണ് ആറന്മുള ആറന്മുള ശ്രീവല്ലഭ ക്ഷേത്രം വളരെ പ്രശസ്തമായൊരമ്പലമാണ് എന്ന് അറിയാം ആ അമ്പലത്തില് എല്ലാ വർഷവും വള്ളംകളി നടക്കാറുണ്ട് അതിൻ്റെ ഇതായിട്ട് തന്നെ വള്ളംകളിയുടെ വള്ള സദ്യ എന്ന് പറയുന്നൊരതൊരു ചടങ്ങാണ് വള്ള സദ്യ നടക്കാറുണ്ട് വള്ള സദ്യ എന്നു പറയുമ്പോള്ത്തന്നെ നമുക്കറിയാം ഒത്തിരി കൂട്ടം കറികളൊക്കെ വച്ച് വലിയാർഭാടമായി നടത്തുന്നൊരു പരിപാടിയാണതോരോരുത്തരു മുൻകൈയെടുത്ത് അവര് ഇപ്പോള് എന്താണു പറയുക അവര് വഴിപാട് പോലെ ചെയ്ത് ബാക്കിയുള്ളവരേയും ഇവര് ക്ഷണിച്ച് അങ്ങനെ നടത്തുന്നതായിട്ടുണ്ട് അല്ലാണ്ടിപ്പോള് എൻ്റെ അയൽപക്കത്തുള്ള അമ്പലത്തിനെപ്പറ്റി പറയാണെങ്കില് ഞാന് നേരത്തെ പറഞ്ഞതു പോലെതന്നെ എല്ലാ തരത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലും കഴിക്കുന്ന വഴിപാടുകള് അവിടെ കഴിക്കാറുണ്ട് പ്രാർത്ഥനകളാണെങ്കിലും ഇവിടെ ഒരു സ്പീക്കര് വച്ചിട്ടുണ്ടപ്പോള് അമ്പലത്തിൽ നിന്ന് രാവിലെയാണെങ്കിലും മാതൃ സമിതി അംഗങ്ങളെല്ലാം ഒത്തുകൂടി അവര് കീർത്തനങ്ങള് ചൊല്ലാറുണ്ട് അതുപോലെതന്നെ തീർത്ഥാടനങ്ങള് അങ്ങനെ തീർത്ഥാടനങ്ങളായിട്ടിതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല പക്ഷേ വേറെ അമ്പലത്തിൻ്റെ പേരിൽ വന്നിട്ടില്ല പക്ഷേ അല്ലാണ്ട് തീർത്ഥാടനങ്ങള് പോയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ചടങ്ങുകള് ഇതൊക്കെയാണ് പല എന്തെങ്കിലും കാര്യ ദിവസം വരുമ്പോഴത്തേക്കും ആ ദൈവത്തിനായിട്ട് എന്തേലും വഴിപാടുകളോ ഹോമങ്ങളോ അല്ലെങ്കില് പേഴ്സണലായിട്ട് എന്താ ദൈ നമുക്ക് ചെന്നിട്ട് ഇതുപോലെ വഴിപാടുകള് നടത്താനുള്ള ആ ഒരു സാഹചര്യവും അമ്പലങ്ങളിലൊഴി ഒരുക്കിത്തരുന്നുണ്ട്